ഇപ്പോൾ ജീവിതത്തിൽ നിങ്ങളേറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ചില പാഠങ്ങൾ എന്തൊക്കെയോ പഠിച്ചു ചോദിച്ചാൽ എനിക്ക് ഞാൻ എന്ത് ചെയ്ത് ഒരു പാട് നാൾ പഠിച്ചു എന്നാൽ വീട്ടിലെ എന്ന എൻ്റെ നല്ല ശീലങ്ങള് ഞാൻ വീടുകള് വീട്ടിൽ നിന്നാണുടായത് വീട്ടിൽ നിന്നാണ് തുടങ്ങിയത് നമ്മള് ദുശീലങ്ങളൊക്കെ ഉള്ളതും വീട്ടില് എങ്ങനയാണോ പെരുമാറുക അതേപോലെയാണ് പുറത്ത് പോയി തീർത്തും പെരുമാറുകയുള്ളു ദുശ്ശിലങ്ങളൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ ഈ ജീവിതത്തിൽ ഈ ലഹരി കാര്യങ്ങളൊന്നും ഉപയോഗിക്കണത് എനിക്ക് ഇഷ്ട്ടമല്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കില്ല ജീവിതത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറഞ്ഞാൽ ജീവിതത്തില് നമ്മുടെ കൂട്ടുകാരന്മാര് എന്താ അത് ചെയ്യുമ്പോൾ അവര് ലഹരി വസ്തു ഉപയോഗിക്കാൻ പറഞ്ഞാൽ നമ്മള് ചെയ്യരുത് നമുക്ക് പറയാനുള്ള അനുഭവം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്താണ് വീട്ട്കാര് പറഞ്ഞിട്ടുണ്ടാവുക നമ്മള് ഇപ്പോൾ ലഹരി കാര്യങ്ങള് ഉപയോഗിക്കാൻ പാടില്ല അത് ചെയ്യുന്നത് തെറ്റാണെന്ന് വീട്ടിൽ നിന്ന് ഒരിത് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങള് വേറൊരാള് ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുമ്പോൾ നമ്മള് കണ്ടാൽ ചെയ്യരുത് എന്നങ്ങ് പറയുക എന്താ പറയുക നമ്മള് ചെയ്യാത്ത കൊണ്ട് നിങ്ങൾക്ക് അവനോട് പറയാനുള്ള അവകാശമുണ്ട് നമ്മളത് നമ്മളതേ തെറ്റ് ചെയ്താൽ പറഞ്ഞാൽ പറയാൻ പാടില്ല അപ്പോൾ ജീവിതത്തിൽ നമ്മള് ഒരു പാട് സാഹചര്യങ്ങൾ കഴിഞ്ഞിട്ട് ജീവിതത്തിൽ വരിക കാരണം പാഠങ്ങൾ എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് പാഠങ്ങൾ പറയാഞ്ഞിട്ട് ഫ്രണ്ട്സ്കാരോട് പറയാറുള്ളത് അത് എന്ന് പറഞ്ഞാൽ അ ഇന്നത് ചെയ്യരുത് ഇന്നത് ചെയ്യർ പറയാറുണ്ട് എന്നാൽ എനിക്ക് നല്ല കാര്യം ചെയ്യാം നല്ല കാര്യം തോന്നുവാണെങ്കിൽ ഞാൻ അവന്റെ പറയും പക്ഷെ അവര് പറയണത് നെഗറ്റിവാണെങ്കിൽ അപ്പോഴത് അവന്മാരോട് പോസിറ്റീവാകാൻ വേണ്ടി പറയും എന്താണ് അത് ചെയ്യാൻ പാടില്ല തെറ്റാണ് എന്നെനിക്ക് പറയാം ഞാൻ പറയാറുണ്ട് അതുകൊണ്ടാണ് എന്തെലും അവന്മാര് ഇതേപോലെ പറയാറുണ്ട് അപ്പം എനിക്കും അവന്മാര് കൂട്ടുകാർ അറിവ് കിട്ടും വീട്ടിൽ നിന്നാൽ അറിവ് കിട്ടും പിന്നെ അല്ലേ ക്ലാസ്സിലും പോയാൽ അതിലും അറിവ് കിട്ടും എനിക്ക് ജീവിതത്തിൽ നിന്ന് ഒരു പാട് കാര്യങ്ങൾ അനുഭവ പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്